ഹലോ ഞാൻ നൂറ്റി അൻപത്തി മൂന്നാം വീട്ടിൽ നിന്നാണെ വിളിക്കുന്നത് ഒരു മുന്നറിയിപ്പുമില്ലാതെ നമ്മുടെ കറണ്ട് പോയല്ലോ നമ്മുടെ ഇവിടുത്തെ ഹീറ്റർ പ്രവർത്തിക്കുന്നില്ലായിരുന്നു അതിൻ്റെ ബാറ്ററി വളരെ ലോയാണ് അതിഭയങ്കരമായ തണുപ്പ് കാരണം എനിക്ക് ഇവിടെ കിടക്കാൻ സാധിക്കുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ കുട്ടികളെല്ലാം തണുപ്പത്ത് കരയുകയാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വൈദ്യുതി പ്രസ്താപിച്ച് നൽകണമെന്ന് താല്പര്യപ്പെടുന്നു നിങ്ങൾ വൈദ്യുതി പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്ന് ഫോൺ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതല്ലേ അരമണിക്കാൽ മണിക്കൂറ് വൈദ്യുതി വരുമെന്നോർത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങളുടെ ഇൻവർട്ടർ ഇപ്പം തീരാൻ പോകുകയാണ് ഞങ്ങളുടെ ഹീറ്ററിനകത്തെ ഹീറ്റിംഗ് സിസ്റ്റം വളരെ ലോയാണ് അതിഭയങ്കരമായ തണുപ്പ് തന്നെയാണ് കുഞ്ഞു കുട്ടികളടക്കം പ്രായമായവരും കുഞ്ഞു കുട്ടികളും പ്രായമായരും ഉള്ളൊരു വീടാണ് ഞങ്ങളുടേത് അപ്പം എത്രയും പെട്ടെന്ന് വൈദ്യുതി പുനഃസ്ഥാപിച്ച് തരണം വൈദ്യുതി കറണ്ട് വരാനിനി എത്ര സമയം എടുക്കും എത്രയും പെട്ടെന്നൊരു മറുപടി നൽകണെ